ഹലോ മാർട്ടിതല്ലേ ഞാൻ ആ ഞാൻ ആ പ്രീവെഡ്ഡിംഗ് ഷൂട്ടിൻറ്റെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നതായിരുന്നു പേരെട്രിൻന്നായിരുന്നു ആ അപ്പം നമുക്ക് അത് എട്രിൻ ഞാൻ ഇടുക്കി ഇടുക്കിയിലെ അടിമാലി

ഇത് നമുക്ക് ആ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി

ആ ചെറുക്കൻ്റെ വീട്ടുകാരാണ്

ഓക്കെ ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി

ഇടയ്ക്ക് കോള് റേയ്ഞ്ച് പോകുന്നുണ്ട് ഇടക്ക് ഇപ്പം കേൾക്കാം ഓക്കെ ഓക്കെ ആ അതൊരു അതൊരു നല്ല കാര്യമാണ് എത്രയും പെട്ടന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി അതെ അതെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ് വിളിച്ചത് എനിക്ക് നിങ്ങളുടെ വർക്ക്ക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു

ആ പറഞ്ഞോ പറഞ്ഞോ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ചോദിക്കട്ടെ പേയ്മെൻറ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞ് തന്നാൽ മതിയോ അതോ ഓ ശരി ശരി ശരി അപ്പം അത് എന്നത്തേക്കാണ് ഓക്കെ ഓക്കെ

നമ്മുടെ അത് ഇത് വർക്ക് ക്യാൻസല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇപ്പം ഈ അഡ്വാൻസ് തരുന്നത് ഓക്കെ ഓക്കെ അത് ഇത് അഡ്വാൻസ് തന്ന് കഴിഞ്ഞാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അഡ്വാൻസിൻ്റെ ഫുൾ എമൌണ്ട് തിരിച്ചു തരുമോ അതോ എന്തേലും ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നിങ്ങൾ ആ ടൈമ് ആകുമ്പോഴ്ത്തേക്കും എത്തുമല്ലോ അല്ലേ

ഓ ശരി ശരി ഓക്കെ ഓക്കെ ഓക്കേ താങ്ക് യൂ അപ്പോൾ വിളിച്ചേക്കാട്ടോ ആ ശരി ആ ഓക്കെ